ഒരിക്കല് മണ്ണാങ്കട്ടയും കരിയിലയും ഒരു യാത്രയ്ക്ക് പോയി യാത്രയ്ക്ക് പോയപ്പോള് പെട്ടെന്നൊരു മഴ വന്നു മഴ വന്നപ്പോള് മണ്ണാങ്കട്ടയുടെ മുകളില് കരിയില കയറിനിന്നു അങ്ങനെ മഴയിൽ നിന്ന് മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോള് വലിയ കാറ്റ് വന്നു കാറ്റ് വന്നപ്പോള് കരിയിലയുടെ മുകളില് മണ്ണാങ്കട്ട കയറിനിന്നു അങ്ങനെ ആ കാറ്റിൽ നിന്ന് കരിയില രക്ഷപ്പെട്ടു അങ്ങനെ അവര് സന്തോഷത്തോടെ യാത്ര തുടർന്നു